എനിക്കൊരു നെഗറ്റീവ് അനുഭവം ഉണ്ടായത് ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചതും ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു അത് ഒരിക്കൽ ഒരു കുറച്ച് ഒരു മൂന്നു നാല് മാസം മുമ്പ് ഞാനൊരു ബെഡ്ഷീറ്റ് ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിരുന്നു നന്നായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങിയതായിരുന്നു വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ അതങ്ങ് ഉപയോഗിച്ചു ഉപയോഗിച്ചിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് അതെടുത്ത് കഴുകാനായിട്ടൊക്കെ നോക്കിയപ്പം കഴുകാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും മറ്റുള്ള തുണികളുടെ കൂടെതന്നെ നമ്മൾ ഈ ബെഡ്ഷീറ്റും അങ്ങ് വെള്ളത്തിൽ താഴ്ത്തിയൊക്കെ വച്ച് നോക്കിയിട്ട് പിന്നെ എടുത്തപ്പോഴത്തേക്ക് ഇതിൻ്റെ കളറ് മൊത്തവും ഇളകി മറ്റുള്ള തുണികളിലും പിടിച്ച് ആകെ കളർ അങ്ങ് ഫെയ്ഡായി ഫെയ്ഡായി നമ്മൾ ആ കണ്ടപ്പോൾ ഉള്ള ഭംഗിയും കാര്യങ്ങളും എല്ലാം ഒറ്റ കഴുകലിൽക്കൂടിതന്നെ അതെല്ലാം അങ്ങു പോയി പിന്നെ പിന്നെ നമ്മൾ അത് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി എടുത്ത് നര അപ്പോഴത്തേക്ക് തന്നെ വീണ്ടും വെയിലും കൂടി തട്ടിയപ്പോഴത്തേക്ക് വീണ്ടും കളറ് ഡാമേജായി കൊണ്ടുവന്ന് നമ്മൾ എടുത്തിട്ട് ഒന്നൊന്നര ഒന്ന് രണ്ടു മാസം വരെ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തുണി കൊള്ളാത്ത തുണി ആയിരുന്നത് കൊണ്ടായിരിക്കണം തുണി ചെറുതായിട്ട് കീറി കീറി പോവുന്ന രീതിലായി അങ്ങനെ ആ മാക്സിമം ഒരു നല്ല വിലകൊടുത്ത് വാങ്ങിയതുമായിരുന്നു ഒരു ഒന്ന് മൂന്ന് മൂന്നു മാസം വരെയൊക്കെ മാക്സിമം നമ്മൾക്ക് അതു ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അപ്പം അതൊരു നെഗറ്റീവ് അനുഭവമായിരുന്നു നമ്മുടെ ഭാഗത്ത് കിട്ടിയത്